അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് കൃഷിപ്പണി ചെയ്താൽ അത് ശരിയായ രീതിയിൽ വരികയില്ല കാരണം അവഋക്ക് ഈ നമ്മുടെ നാട്ടിലെ കൃഷിയുമായിട്ട് വലിയ പരിചയമില്ലാത്ത ഒരു സംഭവമാണ് പിന്നെ അവരെ നമ്മുടെ കൂടെ കൊണ്ടുനടന്നു പണികൾ കാണിച്ചു കൊടുത്തും അല്ലേ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചുമൊക്കെ വരാമങ്കിൽ കുറേയൊക്കെ മാറ്റം വരുവാനായിട്ട് പറ്റും പിന്നെ കൂട്തൽ അവസരം അവർക്ക് കൊടുക്കുക നമ്മുടെ നമ്മൾ കൂടെ നിന്നു അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ അവരെക്കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവരുടെ കൈയിൽ കൃഷി ഏൽപിച്ചിട്ട് നമ്മൾ മാറി നിന്നാൽ അത് കൊണ്ട് പ്രയോജനമുണ്ടാകത്തില്ല എന്നാണ് തോന്നുന്നത്